ഞാനിവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ എൻ്റെ അനിയത്തിയ്ക്ക് വളരെ ഇഷ്ടമാണ് അനിയത്തിയെന്ന് ഉദ്ദേശിക്കുന്നത് അനിയൻ്റെ ഭാര്യ അനിയൻ്റെ ഭാര്യ അപ്പോൾ എന്നോട് ചോദിക്കും ചേച്ചി ചേച്ചി എങ്ങനാ ചേച്ചി ഇത്ര ടേയ്സ്റ്റ് ആയിട്ട് ഈ ഫുഡ്ഡുണ്ടാക്കിയതെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഞാ അവ അനിയത്തിക്ക് അതിൻ്റെ റെസിപ്പി ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നോടിപ്പം അപ്പോൾ അനിയത്തിയാണെങ്കിലും അത് അതനുസരിച്ച് തന്നെ അത് ചെയ്യാറുമുണ്ട് അപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കൂടുതലും ഇതിനേ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഏത് ഭക്ഷണമാണോ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാനീയിടയ്ക്ക് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയപ്പം അവൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു അപ്പം അവളെന്നോട് ചോദിച്ചു ചേച്ചി ഇനി ഇത് ഉണ്ടാക്കുമ്പം എന്നെയും വിളിക്കണം എനിക്കും ഇത് പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു തവണ ഞാനിത് ഉണ്ടാക്കിയപ്പം ഞാനനിയത്തിയെ വിളിച്ചു അപ്പം അനിയത്തി വന്നു ഞങ്ങൾ രണ്ടു പേരും കൂടി ഉണ്ടാക്കി അപ്പം ഞാൻ അതിൻ്റെ ആ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട വിധം വേവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനിയത്തിക്ക് പഠിപ്പിച്ചു കൊടുത്തു അപ്പം നമ്മൾ രണ്ടു പേരും കൂടി ഉണ്ടാക്കി കഴിഞ്ഞപ്പത്തേക്ക് അത് അവളത് പഠിച്ചെടുത്തു അപ്പം അതിന് അപ്പോൾ പ്രത്യേകിച്ച് ട്രിക്കുകളൊന്നുമില്ല അതിൻ്റെ ആ വേവിൻ്റെ പാകം ഒക്കെ നോ പിന്നെയാ മസാലകളൊക്കെ ചേർക്കുന്ന ആ പരിവം അതൊക്കെ നോക്കിയാൽ മതി അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അവളത് പഠിച്ചെടുത്തു അത് കഴിഞ്ഞ് ഒരു ദിവസം അവളത് തന്നേ ട്രൈ ചെയ്തു തന്നെ ട്രൈ ചെയ്തിട്ട് എന്നെ കഴിയ്ക്കാനായിട്ട് വിളിച്ചിരുന്നു അപ്പം ഞാൻ പോയി കഴിച്ചു ഏകദേശം ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ടേയ്സ്റ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അതവളത് പഠിച്ചെടുത്തു